ക്യാൻസർ ഹൃദ്രോഗങ്ങൾ എന്നിവയുടെ ചികിത്സക്കായിട്ട് നമുക്ക് കീമോ അല്ലെങ്കിൽ ഫിസിയോ തെറാപ്പിയോ അല്ലെങ്കിൽ ഡയാലിസിസോ ഒക്കെ നടത്തെണമെങ്കില് അത് സർക്കാര് ചിലവിൽ ബുദ്ധിമുട്ടാണ് എന്നു വെച്ചാൽ നമ്മള് അതിൻ്റെ കാത്ത് കെട്ടി കിടന്ന് അവരുടെ ഒക്കെ അടുത്ത് പോയി അവരുടെ സമയവും സന്ദർഭവും അനുസരിച്ചൊക്കെ ചെയ്ത് കിട്ടുകയെന്നല്ലാതെ അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ അവിടുത്തെ ധൃതി അല്ലെങ്കിൽ അവടുത്തെ തിരക്ക് ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് സർക്കാറിൽ നിന്ന് നമുക്ക് ഈ സൗകര്യങ്ങള് ഉണ്ടാവുകയുള്ളൂ അതിന് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് മറ്റ് റെക്കമെന്റേഷനോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യ് ചെയ്ത് കൊടുത്താൽ മാത്രമേ

മറ്റുള്ള ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതോടുകൂടി അവൻ്റെ വീട് കുടുംബം നിലം പരിശാകുന്ന ഒരു അവസ്ഥയാണുള്ളത് അല്ലെങ്കിൽ ആ രോഗമൊട്ടു മാറുകയും ഇല്ല സാമ്പത്തികമായിട്ട് പൂർണമായി അവര് ആ കുടുംബം നശിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷമം അതിലുപരി ഇത് സർക്കാര് ചിലവില് നടക്കുന്നില്ല എന്നതുകൊണ്ട് ഒരു എഴുപത്തഞ്ചു ശതമാനം ജനങ്ങളും ഇത് നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ പ്രൈവറ്റ് ഹോസ് ഫിസിക്കൽ ആസ്പത്രികളെയൊക്കെയാണ് ആശ്രയിച്ചിട്ടാണ് ഈ കാര്യങ്ങള് ചെയ്യണത് ചെയ്തിട്ടൊരു പരിധി വരെ എന്തായാലും സാമ്പത്തികമായിട്ടുളള ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് രക്ഷപ്പെട്ടു പോരണുള്ളൂ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നും വളരെ ബുദ്ധിമുട്ട് ഉണ്ട് അതിന് പോയി നിന്ന് നിന്ന് കാര്യങ്ങള് ചെയ്ത് പോരുക എങ്കിൽ സർക്കാര് ചിലവില് എളുപ്പമല്ല